നമുക്ക് മത്സ്യബന്ധനത്തിനെന്നു പറഞ്ഞാൽ ഏതു തരത്തിലും വേണമെങ്കിൽ ബോട്ടു ഉപയോഗിക്കാം ചെറിയ ചെറിയ ബോട്ടുകളിൽ പോയിട്ട് നമുക്ക് ചെയ്യാം ധൈര്യമൊക്കെ ഉണ്ടങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവമുണ്ട് അതു വാങ്ങിയാൽ പിന്നെ അതിലും കയറിപ്പോയി മീൻ പിടിക്കുക നമുക്ക് സ്വന്തമായിട്ട് ബോട്ട് ഉടമസ്ഥത ഒന്നും ഇല്ല നമുക്ക് വേണമെങ്കിൽ ബോട്ട് ഇപ്പം ബോട്ടിൽക്കയറി മീൻപിടിക്കണം എന്നു ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെകൂടെ പോയി പിടിക്കുക സ്വന്തമായിട്ട് ബോട്ടും കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ല പിന്നെ എല്ലാവരും അത്യാവശ്യം മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടിലൊക്കേയും പിന്നെ കപ്പലിലല്ല കപ്പലിൽ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ട് ആ നമ്മുടെ ഇവിടെ അങ്ങനെ വീട്ടീൽനിന്ന് ആരും ഇല്ല നമുക്ക് കപ്പലും ഇല്ല ബോട്ടും ഇല്ല പക്ഷെ ഞാൻ ബോട്ടിൽക്കയറി മീൻ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ആലപ്പുഴയിൽ പോയപ്പം കായലിൽ നമ്മളൊരു ഹൗസ് ബോട്ടിങ്ങ് റെൻ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വൺ ഡേ അപ്പം അങ്ങനെ മീൻ പിടിച്ചിട്ടുണ്ട് മീൻ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് അതിൽ കയറിയിട്ട്